ഷാജ് റെസ്റ്റോറന്റല്ലേ ഞാന് പിന്നെ അവിടെനിന്ന് ഫുഡ്ഡിന് ഓര്ഡര് ചെയ്തിരുന്നു പൊറോട്ടയും ബീഫുമായിരുന്നു ഓര്ഡര് ചെയ്തിരുന്നത് അപ്പോൾ രണ്ടു മണിക്കൂറിനകം നമുക്ക് ഫുഡ് എന്റെ അഡ്രസ്സില് എത്തിക്കാമെന്നായിരുന്നു അവിടെനിന്ന് പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോൾ മൂന്ന് മണിക്കൂറായി നമ്മൾ ഓര്ഡര് ചെയ്ത സമയം കഴിഞ്ഞു മൂന്ന് മണിക്കൂറായി ഇതുവരെയും ആൾ ഇവിടെ ഡെലിവറി ചെയ്തിട്ടില്ല വീട്ടിൽ അപ്പോൾ നിങ്ങൾ എപ്പോൾ എത്തിക്കുമെന്ന് ഒന്ന് അറിയിക്കണം സമയം നമുക്ക് ഒന്ന് പറഞ്ഞു തരണം അപ്പോൾ നമ്മൾ വിളിച്ചു പറഞ്ഞതിന് സമയം സമയം തന്നെ ഇപ്പോൾ മൂന്ന് മണിക്കൂറായി കുട്ടികളൊക്കെ വിശന്ന് ഇരിക്കുകയാണ് അപ്പോൾ നിങ്ങളത് ദയവായി എത്രയും പെട്ടെന്ന് നമുക്ക് എത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണം